ഞാൻ സ്കൂളിലും കോളേജിലുമായിട്ട് പല ഇന്ത്യൻ ശാസ്ത്രജ്ഞമാരേം കുറിച്ച് പഠി പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അതിൽ ന കുറച്ച് പ്രസ്തരായ ശാത്രജ്ഞരെ കുറിച്ച് പറയാണെങ്കിൽ സി വി രാമൻ എ പി ജെ അബ്ദുൽ കലാം പിന്നെ ജെ സി ബോസ് എന്നറിയപ്പെടുന്ന ജഗതീഷ് ചന്ദ്ര ബോസ് പിന്നെ എം എസ് സ്വാമിനാഥൻ പിന്നെ മേഘ്നാഥ് സാഹ വിക്രം സാരാഭായ് പിന്നെ ഗണിത ശാസ്ത്രഞ്ജരെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാമാനുജൻ അപ്പം ഇവരൊക്കെ പ്രസ്തരായ ശാത്രജ്ഞരാണ് ഇവരെല്ലാവരും ഭാരതത്തിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ സി വി രാമനെ പറ്റി പറയാണെങ്കിൽ സി വി രാമൻ ഒരു ഭാരതത്തിലെ ഒരു പ്രസ്തനായ ഫിസിസി ഫിസിസിസ്റ് ആണ് ലൈറ്റ് കാറ്റെറിംഗിന്റെ ഭാഗമായിട്ടുള്ള കണ്ടുപിടിത്തത്തിലാണ് അദ്ദേഹം പ്രശസ്തി നേടിയത് സ്പെക്ടോ ഗ്രാഫ് എന്നുപറയുന്ന ഒരു ഡിവൈസിലൂടെ അദ്ദേഹം ലൈറ്റ് ക്യാറ്റ്റിങ്ങിനെ പറ്റിയുള്ള തിയറി അദ്ദേഹം കണ്ടുപിടിച്ചു പിന്നീട് അതിന് രാമൻ എഫ്ഫക്റ്റ് എന്നുളളുരു പേരും വന്നു ഈ ഒരു തിയറിക്ക് ഏഷ്യയിൽ നിന്നും ആദ്യത്തെ നോബെൽ പ്രൈസ് കിട്ടുന്ന ശാത്രജ്ഞൻ സി വി രാമനാണ് അദ്ദേഹം തമിഴ്നാട്ടിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും രണ്ടു മാതാപിതാക്കളും ബ്രഹ്മൺ വർഗ്ഗത്തിൽപെട്ടവരായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് മഡറാസിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചിറങ്ങിയത് പിന്നീട് രാമൻ റീസെർച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നു പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം സ്ഥാപിച്ചു ഇതുപോലെ ശാസ്ത്രം പഠിക്കുവാനും അതിനെപ്പറ്റി അതിനെ ഇഷ്ടപെടുന്നവർക്കുവേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പിന്നീട് അടുത്ത ഒരു ശാസ്ത്രജ്ഞൻ എന്നു പറയുന്നത് എ പി ജെ അബ്ദുൽ കാലാംമാണ് എല്ലാവർക്കും അറിയുന്നപോലെ അദ്ദേഹത്തിൻറെ മുഴുവൻ പേര് പറയാണെങ്കിൽ അവിൽ പക്കർ ജനൂൽ അബ്ദീൻ എ പി ജെ അബ്ദുൽ കലാം എന്നാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ പതിനൊന്നാമത്തെ പ്രസിഡന്റ് ആയി പിന്നീട് അദ്ദേഹം എന്തുപറയാ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു പ്രസിഡന്റ് ആയിരുന്നു എറോസ്പീസ് ശാസ്ത്രജ്ഞൻ ആണ് എ പി ജെ അബ്ദുൽ കലാം തമിഴ്നാട്ടിലെ രാമേശ്വരം എന്നുപറയുന്ന ഗ്രാമത്തത്തിലാണ് എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് വളരെ ദാരിദ്രത്തിലൊക്കെയാണ് അബ്ദുൽ കലാം ജനിച്ചതെങ്കിലും പിന്നീട് നമ്മുടെ ഭാരതത്തിനുവേണ്ടി ഒത്തിരിയധികം പ്രയത്നിച്ച ഒരു ശാത്രജ്ഞനാണ് എ പി ജെ അബ്ദുൽ കലാം ഫിസിക്സ് ആണ് അദ്ദേഹം പഠിച്ചത് ഏറോസ്പേയ്സ് എഞ്ചിനീയറിംഗ് പഠിച്ചു പിന്നീട് ഇന്ത്യൻ സ്പേസ് റീസെർച് ഓർഗനൈസേഷൻ ആയ ഐ എസ് ആർ ഓയിൽ അദ്ദേഹം ജോലി ചെയ്തിട്ട്ണ്ട് മിസൈഡ് ടെവലെപ്മെന്റ്റ് ആണ് അദ്ദേഹം കൂടുതൽ ചെയ്തത് മിസൈലുകൾ ടെവലെപ്മെന്റ്റ് ചെയ്യുന്നതിൽ അതുകൊണ്ടന്നെ അദ്ദേഹത്തിന് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പേര് അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹം കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് വിങ്സ് ഓഫ് ഫയർ എന്നു പറയുന്ന ഒരു ബുക്കും പിന്നെ ഇഗ്നേറ്റഡ് മൈൻഡ്സ് എന്നു പറയുന്ന വേറൊരു പുസ്തകവും അദ്ദേഹം എഴുതിട്ട്ണ്ട് ഒത്തിരിയധികം പേരിഷ്ടപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്ന എ പി ജെ അബ്ദുൽ കലാം അടുത്ത ശാസ്ത്രജ്ഞൻ എന്നുപറയുന്നത് ജെ സി ബോസ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ജഗതീഷ് ചന്ദ്ര ബോസ് അദ്ദേഹം ബിയോളജി ഫിസിക്സും ബോട്ടണിയോക്കെ പഠിച്ചിട്ടുണ്ട് ബംഗാളി സയൻസ് സെക്ഷൻ ആണ് അദ്ദേഹം അദ്ദേഹത്തിന് എഴുതാൻ ഇഷ്ട്ടം ആയിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ബംഗാളി സയൻസ് സെക്ഷൻറെ പിതാവ് എന്ന ഒരു പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് പിന്നെ ക്രക്സോഗ്രാഫ് എന്നുപറയുന്ന ഒരു ഡിവൈസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിവൈസ് ചെടികളുടെ വളർച്ചയെ അഴുവ അളക്കുന്ന ഒരു ഡിവൈസ് ആയിരുന്നു ക്രക്സോഗ്രാഫ് എന്നുപറയുന്ന ആ ഒരു ഡിവൈസ് അപ്പം ജഗതീഷ് ചന്ദ്ര ബോസിനെ പറ്റി പറയാൻ അത്രയാണ് ഉള്ളത് അടുത്തത് എന്നുപറയാൻ അടുത്ത ശാസ്ത്രജ്ഞൻ എമ് എസ് സ്വാമിനാഥനാണ് എല്ലാവർക്കും അറിയുന്ന പോലന്നെ ഗ്രീൻ റെവല്യൂഷൻ ആണ് അദ്ദേഹം ആ ഒരു ഭാഗത്താണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഈ ഗോതമ്പിൻറെയും റൈസിന്റെയും എന്തുപറയാ പല വെറൈറ്റി ഓഫ് പ്ലാൻറ്സിൻറെയും അതായത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി തരുന്ന പ്ലാൻറ്സിൻറെ വെറൈറ്റി കണ്ടുപിടിച്ചതാണ് എമ് എസ് സ്വാമിനാഥൻ ഫുഡ് ക്രോപ്സ് ഇന്ത്യയിൽ ഫുഡ് ക്രോപ്സിലും ഫുഡ് സ്റ്റോക്സിലും വലിയൊരു ചേഞ്ച് അദ്ദേഹം കൊണ്ടുവന്നു വളരെ പ്രശസ്തനായ സെൻണ്ടിസ്റ് ആണ് ശാസ്ത്രജ്ഞനാണ് എമ് എസ് സ്വാമിനാഥൻ ഇവരെക്ക കൂടാണ്ട് മേഘ്നാഥ് സാഹ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ് വേറൊരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഗണിത ശാസ്ത്രത്തിൽ വളരെ പ്രശസ്തി നേടിയ ഒരാളാണ് രാമാനുജൻ അപ്പം ഇവരൊക്കെയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ